ഓരോരുത്തർക്കും അവരുടേതായ ഒരു കുട്ടിക്കാലമുണ്ട് എല്ലാ ആൾക്കാരും അവരുടെ ചെറുപ്പകാലങ്ങളെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഒരിക്കലും മനസ്സില് നിന്നും മാഞ്ഞുപോകുകയുമില്ല മറക്കുകയുമില്ല ഞാനൊക്കെ പഠിച്ച കാലത്ത് സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയാണ് ദാരിദ്ര്യവുമുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ വിദ്യാഭ്യാസം നടത്തിയത് ഞാൻ പഠിച്ചത് മൂവാറ്റുപുഴ താലൂക്കില് ആരക്കഴ സ്കൂളിലാണ് അവിടെ രണ്ട് ഹൈസ്കൂളുകളാണുള്ളത് സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളും സെന്റ് മേരീസ് ബോയിസ് ഹൈസ്കൂളും അങ്ങനെ രണ്ട് സ്കൂളുകള് ഇവിടെയുണ്ട് മാനേജ്മെന്റ് സ്കൂളുകളാണ് ആ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്ത് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തികവും പട്ടിണിയുമുള്ളൊരു കാലഘട്ടങ്ങളിലാണ് ഞാൻ വിദ്യാഭ്യാസം നടത്തിയത് അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ച് ഇന്നും നല്ല ഓർമ്മയുണ്ട് നല്ലതും മോശപ്പെട്ടതുമായ അധ്യാപകരുണ്ട് നല്ല അധ്യാപകരെയും മനസ്സിൽ സൂക്ഷിക്കുന്നതോടൊപ്പം മോശപ്പെട്ട അധ്യാപകരെയും മനസ്സിൽ മറക്കാതെ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു കാരണം ഇന്ന് അന്ന് ഞാൻ പഠിച്ചപ്പോള് ഒരു ഹിന്ദി സാറുണ്ടായിരുന്നു അതുപോലെ ഒരു മലയാളം സാറുണ്ടായിരുന്നു അവരൊക്കെ എന്നോട് ചേർന്നുനിന്ന് എൻ്റെ തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്നെ ഉപദേശിച്ച് നല്ല ശിക്ഷണങ്ങള് തന്ന് അവരെന്നെ പഠിപ്പിക്കുമായിരുന്നു അത് അവർക്കൊരിക്കലും വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല വ്യത്യാസമില്ലാതെ എല്ലാവരോടും തുല്യമായി പെരുമാറുന്നൊരു ശീലമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ അധ്യാപകരെ കൂടുതലിഷ്ടം അതേസമയത്ത് വേറെ ചില അദ്ധ്യാപകരുണ്ടായിരുന്നു പണക്കാരുടെ പിള്ളേരെ മാത്രം അല്ലെങ്കിൽ ആ സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ അല്ലെങ്കില് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുട്ടികളോട് പ്രത്യേക മമതയും അവർ ചെയ്യുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും നമ്മുടെ തെറ്റുകൾ പൊക്കിപ്പിടിക്കുകയും നമുക്ക് ശിക്ഷ തരികയും ചെയ്യുമ്പോൾ ആ അധ്യാപകരോട് മാനസികമായിട്ട് ഒരു പ്രതികാരബുദ്ധി നമ്മുടെ മനസ്സിൽ ആ അധ്യാപകരോടുള്ള ഇഷ്ടക്കുറവ് നിലനിൽക്കും അത് ഒരുകാലത്തും വിട്ടുപോവുകയില്ല അതുപോലെ നല്ല അധ്യാപകരെയും നമ്മൾ കൃത്യമായി ഓർക്കും ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള കുട്ടിക്കാലം ഒരിക്കലും ആരും മറക്കുകയില്ല അത് നല്ലതായാലും ചീത്തയായാലും ആ സ്മരണകളെന്നും ഓരോരുത്തരുടെ മനസ്സിലും നിലനിൽക്കും